കൃഷി അഥവാ മത്സ്യബന്ധനം അല്ലെങ്കില് മൃഗപരിശീലനം ക്ഷീരോല്പാദനത്വം ക്ഷീരോൽപാദനം ഇങ്ങനെയുള്ള കാര്ഷികമേഖലകളിൽ വളരെ അധികം സങ്കേതികവിദ്യയുടെ വളര്ച്ചകൊണ്ട് ഒത്തിരി സഹായങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പം ഞാൻ പ്രത്യേകമെടുത്തു പറയാനാണെങ്കിൽ കൃഷിമേഖലയില് തന്നെ പുതിയ പുതിയ എന്താണ് പറയുക മെഷീൻസ് വന്നതുകൊണ്ടു തന്നെ ഈവൻ വിളവെടുക്കുന്ന കൊയ്തെടുക്കുന്നതാണെങ്കിലും അങ്ങനത്തെ പുതിയ പുതിയ മെഷീന് വന്നതോടു കൂടി ആൾക്കാർക്ക് സാങ്കേതിക വികസനം ഉണ്ടായതുകൊണ്ടായിരിക്കാം ആ ഒരു വളര്ച്ച കൊണ്ടിട്ട് ഒത്തിരി ആള്ക്കാര്ക്ക് പണി കുറഞ്ഞതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ മത്സ്യബന്ധനത്തിനാണെങ്കിലും ഈ പറഞ്ഞത് പോലെ മത്സ്യ മത്സ്യം മീന് പിടിക്കാന് വേണ്ടിയിട്ടുപയോഗിക്കുന്ന പല എന്താണ് പറയുക സാധനങ്ങളാണെങ്കിലും കുറച്ചു കൂടെ എന്താണ് പറയുക ഈ സാങ്കേതികമായി വളർന്നത് കൊണ്ട് തന്നെ മീനിനെ എങ്ങനെ വളരെ പെട്ടെന്ന് കിട്ടാം അങ്ങിനെയുള്ള ഒരു ഈസി ആക്സിസ്സ് കിട്ടിയതായി തോന്നിയിട്ടുണ്ട് ഇപ്പം ക്ഷീരോത്പാദനം പശുവിന്റെയൊക്കെ കേസിലാണെങ്കില് ഇപ്പം നമുക്ക് പുതിയ ഒരു പഠനം വച്ചിട്ട് പശുവിന്റെ പാലിന്റെ ഉത്പ്പാദനം കൂടണമെങ്കിൽ പശുവിനെ ശാസ്ത്രീയ സംഗീതം കേള്പ്പിച്ചു കഴിഞ്ഞാൽ പശുവിൻ്റെ ആ ഒരു എന്താണ് പറയുക ഇപ്പം ക്ഷീരോല്പാദനം കൂടും അതൊരു ഞാൻ അതൊരു സാങ്കേതിക വളര്ച്ചയായിട്ട് തന്നെയാണ് പണ്ടത്തെ ആള്ക്കാര്ക്ക് അത് അറിയില്ലായിരുന്നല്ലോ ഇപ്പം അതൊരു സാങ്കേതിക വളര്ച്ചയായിട്ട് തന്നെയാണ് ഞാന് കാണുന്നത് പാട്ട് കേൾപ്പിക്കുന്നതും അതേപോലെ തന്നെ അവര്ക്ക് കുറച്ചു കൂടെ അവരുടെ അവരെ നോക്കുന്ന രീതികളാണെങ്കിലും പല കൂട് വൃത്തിയായി സൂക്ഷിക്കുന്നതാണെങ്കിലും പാൽ ഉല്പാദിപ്പിക്കുന്നത് ആണെങ്കിലും പാൽ ഉല്പാദിപ്പിച്ചു അത് പണ്ടൊക്കെ കറക്കണമായിരുന്നു ആള്ക്കാര്ക്ക് ഇപ്പം കറക്കണ്ട ആവശ്യമൊന്നുമില്ല കറക്കുന്ന ആള്ക്കാരെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നമുക്ക് ആ ഒരു സംഭവം ഫിറ്റ് ചെയ്ത് കൊടുക്കുക ആണെങ്കിൽ തനിയെ അത് പാൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് കിട്ടുന്ന രീതിയിലുള്ള പുതിയ പുതിയ വളര്ച്ച അത്രയും വളര്ച്ച ഉണ്ടായിട്ടുണ്ട് അപ്പം ഉറപ്പായിട്ടും പക്ഷേ ഒരു സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കില് അതൊരു ആള്ക്കാരുടെ ഇപ്പം ആ ജോലികള് ചെയ്തു കൊണ്ടിരുന്ന ആള്ക്കാര്ക്ക് ജോലി കിട്ടാതായതായിട്ടും അതിനൊരു ഉറപ്പായിട്ടും അതിന്റെ ഒരു നെഗറ്റീവ് സൈഡുണ്ട് പക്ഷേ അല്ലാണ്ട് നോക്കുകയാണെങ്കില് ഉറപ്പായിട്ടും വളര്ച്ച തന്നെയാണ് വളര്ച്ച എന്തായാലും നമുക്ക് വേണമല്ലോ ഇപ്പം അങ്ങനെ ഇപ്പം എളുപ്പമുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ എളുപ്പമുള്ള കാര്യങ്ങളെന്നു പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം പണ്ടൊക്കെ ഇതിന് ചെയ്യാന് വേണ്ടിയിട്ട് ആക്കാർ ഒരു വീട്ടില് രണ്ട് പശു ഉണ്ടെങ്കില് ആള്ക്കാര്ക്ക് കറക്കാന് ആളിനെ തപ്പണം അയാൾ ഫ്രീ ആയിട്ട് വന്നാലേ അയാൾ കറന്ന് തരത്തുള്ളൂ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പണ്ട് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എന്റെ വീട്ടിലാണെങ്കിൽ തന്നെ പശുവിനെ കറക്കാന് വേണ്ടിയിട്ട് എനിക്ക് വേറെ ഒരാളുടെ സഹായം ആ എടുക്കേണ്ട ആവശ്യമില്ല ഒരു സംഭവം എന്താണ് പറയുക പശുവിന്റെ അകിടിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് ഓട്ടോമാറ്റിക്കിലി പാൽ കറക്കാം എന്നുള്ള ഒരു സംഭവം വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ എളുപ്പമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ മൃഗത്തിനെ പരിപാലിക്കുന്ന ഈവൻ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിയെ അല്ലെങ്കിൽ പൂച്ചയെ ആണെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ ഇപ്പം പണ്ടൊക്കെ ഒരു ചെറിയ അസുഖം വന്നു കഴിഞ്ഞാൽ ഓടി ഡോക്ടറുടെ അടുത്ത് കൊണ്ടു പോകണം മൃഗ ആശുപത്രിയൊക്കെ കുറവുള്ള സമയമാണ് അപ്പോൾ അങ്ങനെ കൊണ്ടോണ പണ്ടത്തെ ആള്ക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം നമ്മുടെ എല്ലാം വിരല്ത്തുമ്പിൽ ആയതുകൊണ്ട് തന്നെ ഇപ്പം ഇപ്പോൾ ഒരു ഡോക്ടറെ കാണാന് പോകണോ അപ്പം തന്നെ അപ്പോയ്മെന്റ് ഫോണിലേക്ക് ബുക്ക് ചെയ്ത് നേരെ ഡോക്ടറെ കാണാന് പോകാം എന്നുള്ള ഒരു രീതിയായി വന്നിട്ടുണ്ട് അപ്പം പല രീതിയിലും അത് ഉപകാരപ്രദമാണ് പക്ഷേ അതേസമയം നമ്മൾ നോക്കുക വേറൊരു രീതിയിൽ നോക്കുക ആണെങ്കിൽ പല ആള്ക്കാരുടേയും ജോലി നഷ്ടപ്പെട്ടതായിട്ട് കാണാം പക്ഷെ ഏറ്റവും കൂടുതൽ ഞാന് പറയുന്നത് സാങ്കേതികവിദ്യയുടെ വളര്ച്ചക്കൊണ്ടിട്ട് ഗുണം ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കണം എന്നുള്ള ഒരാളാണ് ഞാന്